ഹലോ ഇതാരായിരുന്നു അതെയതെ ആ ഓക്കെ ആ ഇപ്പം ഓണം ഒക്കെ കഴിഞ്ഞതുകൊണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞ് പോർഷൻസ് ഒക്കെ കുറച്ച് എത്തിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ എന്നാൽ വന്ന് ചേർക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചേർത്തോളൂ എത്രാം സ്റ്റാൻഡേർഡിലേക്കാണ് ഏ എത്രാം സ്റ്റാൻഡേർഡിലേക്ക് ഒക്കെ ആണ് ഹലോ

ഓക്കെ ഓക്കെ

നിങ്ങൾ എത്രയും വേഗം നി വരുന്ന ദിവസം തന്നെ വന്ന് ചേർത്താൽ മതി കാരണം കുറേ ഡിലേ ആയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ ഒരുപക്ഷേ അവരുടെ പോഷൻ ഇതിനുമുമ്പായിരിക്കും മുമ്പോട്ടായിരിക്കും ചിലപ്പം ഇവിടെ എടുത്തതിനേക്കാളും പുറകിലോട്ടായിരിക്കും അപ്പം കവർ ചെയ്തെടുക്കാൻ മക്കൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറുവല്ലേ കുട്ടികൾ അതിൻറ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഫീസ് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ നമ്മളിവിടെ ഡൊണേഷൻ ആയിട്ട് ഇരുപതിനായിരം രൂപയാണ് ഡൊണേഷൻ ഒരു കുട്ടീൻ്റെ അടുത്തുനിന്ന് വാങ്ങുന്നത് ഫീസ് ഓരോ സ്റ്റാൻഡേർഡിലേക്കുള്ള ഫീസ് നമുക്ക് ടീച്ചർമാരോട് അവരുടെ ക്ലാസ്സ് ടീച്ചർ അല്ലെങ്കിൽ ക്ലാസ്സിലെ ടീച്ചറിനോട് അന്ന് വരുമ്പം നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവിടുവാണോ അതോ ബസ്സിലാണോ എന്നൊക്കെ അങ്ങനെ സംസാരിക്കാം കാരണം ഇപ്പം എന്തായാലും ഡൊണേഷൻ അത്രയും ആണ് ഫീസ് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതി ഒറ്റയടിക്ക് നിങ്ങൾ ഫീ അടക്കണം എന്നില്ല

ഇല്ലില്ല ടീച്ചറോട് ഒന്ന് പറഞ്ഞാൽ മതി ടീച്ചേർസ് ഓരോ ടീച്ചേർസ് ഓരോ സബ്ജെക്ട് അതവർക്ക് പറഞ്ഞുകൊടുത്തോളും

യൂണിഫോം നമുക്ക് ഈ ഇവിടുന്ന് നമ്മൾ പിന്നെ മെഷർമെൻറ്റ് എടുത്ത് ഇവിടുന്ന് അടിച്ചുകിട്ടും നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുവാണെങ്കിലും കുഴപ്പമില്ല് നിങ്ങളുടെ ഇഷ്ടം ഇവിടുന്ന് അടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടുന്നാണ് എളുപ്പമെങ്കിൽ പറഞ്ഞാൽ മതി അപ്പം നമ്മളിവിടുന്ന് അറേഞ്ച് ചെയ്തുതരും

ആ ആ ആ അത് അതാരിക്കും എളുപ്പം

ഒ എന്തായാലും ഒന്ന് വരൂ വരുന്ന ദിവസം അല്ലെങ്കിൽ നിങ്ങൾ നേരെ സ്കൂളിലോട്ട് വന്നാൽ മതി എന്നാൽ ശരി